നമ്മളിപ്പോൾ സ്കൂളിലൊക്കേന്ന് പറയുമ്പോൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇതൊക്കെയുണ്ട് അതായത് അശോക ചക്രവർത്തീന്നൊക്കെ പറയുന്ന രാജാക്കന്മാരൊക്കെപ്പറ്റി ഒക്കെ നമ്മള് കുറെ പഠിച്ചിട്ടുണ്ട് പിന്നെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചത്ന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയാണ് പഠിച്ചത് അപ്പോൾ ചോള എന്താ ചോള വംശകന്മാരായ രാജാക്കന്മാരെ കാര്യങ്ങളൊക്കെണ്ട് പിന്നെ എന്താ പറയുക പണ്ടത്തെ ഓരോ രാജാക്കന്മാരെയൊക്കെ ഹിസ്റ്ററിയില് ഒരുപാട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചരിത്രത്തില് എന്താ പറയുക ഒരുപാട് നമ്മള് കേട്ട് വന്നിട്ടുള്ള കഥകളൊക്കെ ആയത്കൊണ്ട് തന്നെ അത് നമക്ക് മനസ്സിലാക്കാനും പറ്റിയിരുന്നില്ല പിന്നെന്താ പറയുക ഇപ്പോന്ന് നമുക്ക് ചോള വംശ രാജാക്കന്മാരെന്നൊക്കെപ്പറയുമ്പോൾ പൊന്നീൻ സൽവൻന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിരുന്നു അപ്പോൾ അതില് നല്ല വ്യക്തമായി കൃത്യമായിട്ട് അത് പറയുന്നുണ്ടായിരുന്നു അതായത് എന്താ പറയുക ചോള രാജാക്കന്മാരെപ്പറ്റിയൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മക്കേകദേശം ഓൾമോസ്റ്റ് എല്ലാം നല്ല മനസ്സിലാവുന്നുണ്ട് അതായത് ഒരു ചരിത്രത്തിലെ രാജാക്കന്മാരുടെ ഓരോ കഥെന്നെയാണ് പണ്ട്ന്നൊക്കെ പറയുമ്പോൾ ഓരോ രാജ്യങ്ങള് വെട്ടിപ്പിടിച്ച് എടുക്കുന്നതൊക്കെയാണ് അതിലെ കഥ അപ്പോൾ അത്പോലെത്തന്നെ നല്ല രീതിക്കെന്നെ ഇപ്പോൾ ഇതിലും രാജാക്കന്മാരുടെ കല എന്താ പറയുക ആ ഒരു കഴിവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് രാജാക്കന്മാരെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് രാജാക്കന്മാരുടെ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയില് നിൽക്കുന്നുളളൂ